ഹലോ ഞാൻ ഓൺ ഓൺലൈനിൽ നിന്നൊരു ജാക്കറ്റ് വാങ്ങിയിരുന്നു ഏട്ടാ ഇവിടെ വളരെ തണുപ്പായതുകൊണ്ടാണ് ആ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തത് പക്ഷേ കിട്ടിയതിന്റെ കോളിറ്റി വളരെ മോശമായിരുന്നു അതിന്റെ നൂലെല്ലാം വലിഞ്ഞിട്ട് പിഞ്ഞിയിരിക്കുകയായിരുന്നു ഉപയോഗിക്കാൻ വയ്യാത്ത ഒരു കണ്ടീഷനിലാണ് പ്രോഡക്ട് കയ്യിൽ കിട്ടുന്നത് അപ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് ഓർഡർ ചെയ്തത് അയിൻ്റെ ഫോട്ടോയും കളറും ഒക്കെ കണ്ടിട്ടാണ് ഓർഡർ ചെയ്തത് പക്ഷേ കിട്ടിയ പ്രൊഡക്റ്റ് വളരെ മോശമായിരുന്നു വളരെ മോശമായ ഒരനുഭവമാണ് എനിക്ക് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല പറയാം ശ്